ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എൻ്റെ അറിവിൽ ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ മലയാളം ഒരു ഭാഷയാണ് അതുകൂടാതെ ഹിന്ദി ഉണ്ട് തമിഴ് ഉണ്ട് തെലുങ്കുണ്ട് കന്നഡ ഉണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റിലൊക്കെ വേറെ പല ട്രൈബൽസൊക്കെ വേറെ പല ഭാഷകളും സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഷെഡ്യൂൾഡ് ലാംഗ്വേജിൽ വരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പിന്നെ ബംഗാളി ഭാഷ അപ്പം ഗുജറാത്തി ഇങ്ങനെ ഉള്ള ഭാഷകളൊക്കെ ഷെഡ്യൂൾഡ് ലാംഗ്വേജ് ആണ് ഔദ്യോഗിക ഭാഷകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ എനിക്ക് അധികം ഇതിനെക്കുറിച്ച് അറിവില്ല പിന്നെ രാജ്യത്തിൻ്റെ ഭാഷ വൈവിധ്യം നമുക്കറിയാം ഇന്ത്യയെന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നു പറയുന്ന ഒരു ചിന്തയിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു രാജ്യമാണ് അപ്പം ഒരുപാട് ഒരുപാട് ഭാഷകൾ നമ്മുടെ രാജ്യത്ത് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പിന്നെ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ് പക്ഷെ എങ്കിലും ഒരുപാട് സ്റ്റേറ്റുകളനുസരിച്ച് സംസ്ഥാനങ്ങളനുസരിച്ച് അവരുടെ ഭാഷകൾ വ്യത്യാസം ഉണ്ട് ഇപ്പം കേരളത്തിൽ മലയാളം സംസാരിക്കുന്നതുപോലെ തമിഴ്നാട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത് അങ്ങനെ ഭയങ്കര ഭാഷ വൈവിധ്യം ഒള്ള ഒരു രാജ്യമാണ് ഇന്ത്യ